ഹലോ ആ ഇത് ആയിഷയുടെ ഉമ്മ അല്ലേ ആ ഇപ്പോൾ ക്ലാസിലെ ഫസ്റ്റ് യൂണിറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിഷക്ക് കുറച്ചു മാർക്ക് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നല്ല മാർക്കുണ്ടായിരുന്നു ഇപ്രാവശ്യം നല്ല കുറവാണ് ഒരു രണ്ട് വിഷയത്തിൽ പിന്നെ പോയിട്ടുണ്ട് രണ്ട് മാർക്കിന് പിന്നെ ഇതായി അപ്പോൾ എന്താ വീട്ടിന്ന് പഠിക്കുന്നൊന്നുമില്ലേ ആ ആ പിന്നെ വീട്ടിന്ന് ഇരുന്നു പഠിക്കുന്നുണ്ടോ ബുക്കൊക്കെ തുറന്ന് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഫോണിൽ കളിക്കുമോ ഇപ്പോൾ ആ ഫോണ് കൊടുക്കുന്നുണ്ടോ കളിക്കാൻ എന്നാൽ അതന്നെ ഇപ്പോൾ നല്ല ഉഴപ്പാണ് ക്ലാസിലും വലിയ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാലൊന്നും അധികം പറയുന്നില്ല എക്സാമിന് ശേഷം നല്ല മാർക്ക് കുറവാ അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഉഴപ്പുണ്ടെന്ന് പിന്നെ ശ്രദ്ധയെല്ലാം കുറവാ കൂട്ടകാരൊത്തു കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നോള്ളൂ പിന്നെ പഠിത്തത്തിൽ നല്ല പുറകോട്ട് ആ ഇനി ഫോണ് കൊടുക്കണ്ടാട്ടൊ അവളുടെ കയ്യിൽ പിന്നെ ഫോൺ കൊണ്ട് കളിച്ചാൽ തന്നെ പഠിക്കാൻ മടി വരും പിന്നെ ഏത് സമയും ഫോണ് തന്നെ വേണ്ടി വരും പിന്നെ അധികം ഫോണ് കൊടുക്കണ്ട പിന്നെ ഒരു രാവിലെയൊക്കെ കുറച്ചു നേരം എഴുന്നേറ്റ് പഠിക്കാൻ പറ ഒരു അഞ്ചുമണിക്ക് ശേഷം ഒക്കെ പഠിക്കുമ്പോൾ ആ ഇപ്പോൾ ഒന്നാമത് പത്താം ക്ലാസല്ലേ അപ്പം നല്ല മാർക്ക് വേണ്ടേ അല്ലാണ്ട് എസ ൽ സി ആയോണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വൈകുന്നേരം ഇവിടെ ആ പറയൂ ആ

ആ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അതിന് ഫോണി തന്നെ അല്ലേ പറഞ്ഞിട്ട് വീടിന്നന്നെ ആ ആ അത് കാര്യമാക്കണ്ട ദേഷ്യമാണെങ്കിലും കുഴപ്പോന്നൂല്യ ഫോണ് കൊടുക്കണ്ട തീരെ കൊടുക്കണ്ട പിന്നെ ഇപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം ഒരു ക്ളാസ്സുണ്ട് നാലുമണിക്ക് ശേഷം ഒരു നാലര അല്ലെങ്കിൽ അഞ്ചുമണി ഒരു മണിക്കൂർ ഒരു ട്യൂഷൻ പോലെ ഇപ്പോൾ കുറച്ചൂടെ പഠിക്കണംന്ന് തോന്നുന്നവർക്ക് ഒരു ക്യാംപ് പോലെ വെക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് അതിൽ കൂടാം പിന്നെ പറ്റുന്നവർക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ദൂരം എല്ലാം കുറവാ അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിൽക്കണന്നില്ല അപ്പോൾ അവളെ നിർത്തുന്നോ ഒരു അഞ്ച് മണി വരെ ആ ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെ ആ ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചൂടെ പഠിക്കണന്ന് ഉള്ളവർക്ക് അതിൽ കൂടാൻ പറ്റും നിർബന്ധിക്കുന്നില്ല അവരെ കുട്ടികളെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നിൽക്കാം ആ എന്നാൽ പേരെഴുതാം അല്ലേ അവളെ ആ എന്നാൽ ഞാൻ ഇവിടെന്ന് അവളോട് പറയാം വൈകുന്നേരം നിൽക്കണമെന്ന് അതുകൊണ്ട് നല്ല മാർക്ക് കുറവാണ് അതാ ഞാൻ വിളിച്ചത്

ആ ഒന്നാമത് പഠിക്കുന്ന കുട്ടിയല്ലേ കഴിഞ്ഞപ്രാവശ്യം ഒക്കെ നല്ല മാർക്കുള്ളതും പിന്നെ ക്ലാസ്സിലൊക്കെ നല്ല ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പെട്ടന്ന് ഉത്തരം പറയെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ എന്തോ കുഴപ്പം പുറകോട്ട് പോയതായിട്ട് തോന്നുന്നുണ്ട് ആ വീട്ടീന്ന് ഫോണ് കൊടുക്കണ്ട ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി എന്നാൽ ഓക്കേ